ആദ്യം വീടെല്ലാം അടിച്ചുവാരി എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ച് അടിച്ചുവാരി അതിനു ശേഷം ബക്കറ്റില് വെള്ളം എടുത്ത് അത് അതില് തുണി മുക്കി എല്ലാവിടേയും വൃത്തിയായി തുടയ്ക്കുക അതില് കുറച്ച് ഫിനോയിലോ എന്തെങ്കിലും ഒഴിച്ചാല് മതി എന്നിട്ട് നന്നായി തുടയ്ക്കുക അപ്പം നല്ല വൃത്തിയാവും അങ്ങെനെ ആണ് വീട് വ്യത്തിയാക്കുന്നത് പിന്നെ ആദ്യം ചാണകം തേക്കുന്ന വീടായിരുന്നു എന്റേത് ഇപ്പോഴാണ് ഒരു മൂന്ന് നാല് വര്ഷമായിട്ട് ആണ് പുതിയ വീട് പഞ്ചായത്തിന്റേത് കിട്ടിയത് അതിനു ശേഷം ടൈല് ഒക്കെ ഇട്ട് ടൈലിനേക്കാളും എത്രയോ നല്ലതാണ് ചാണകത്തിലുള്ള വീട് ചാണകം തേക്കുന്ന വീട് അതാണ് കാണാനും വ്യത്തി എല്ലാത്തിനും നല്ലതും ആ ആരോഗ്യത്തിനൊന്നും പ്രശ്നങ്ങള് ഒന്നും ഇല്ല അതാണ് ഏറ്റവും വ്യത്തിയും കാണാനും എല്ലാം നല്ലതാണ് ഇപ്പോഴത്തെ ഇത് ടൈല് കാണാനുള്ള ഒരിതുണ്ട് എന്നല്ലാണ്ട് അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല

ആരോഗ്യപ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇപ്പം ഒരു വീടുള്ളതുകൊണ്ട് ആ വീട്ടില് തുടച്ചു വ്യത്തിയാക്കുമ്പോള് വ്യത്തിയാവും അത്രയേ ഉള്ളു